കാലാവസ്ഥയനുസരിച്ച് ഒരോ സാഹചര്യത്തിൽ പക്ഷിപ്പനികളും മൃഗങ്ങൾക്കുമൊക്കെ രോഗങ്ങൾ വരാറുണ്ട് പക്ഷി പക്ഷിപ്പനിയൊക്കെ ആണെങ്കിൽ വല്ല ഒത്തിരി കോഴികളെയൊക്കെ വളർത്തിക്കൊണ്ടിരുന്നപ്പം ആ കോഴികൾ ചത്തുപോകുകയും താറാവും കോഴിയൊക്കെ ചത്ത് ചത്ത് പോകുന്നു തന്നെ പോകുമായിരുന്നു അതുകൊണ്ട് തന്നെയിപ്പം അതിനോടൊക്കെ വളർത്താൻ തന്നെ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നി മൃഗങ്ങളാണെങ്കിലും അവരുടെ അവർക്ക് ചില സമയത്ത് പനിയുണ്ടാകും ദഹനക്കേട് വരും ദഹനക്കേടൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന നാട്ടുമരുന്നുകളൊക്കെ കൊടുക്കും ഉപ്പും പുളിയൊക്കെ കുടമ്പുളിയൊക്കെ അരച്ച് ദഹനത്തിന് വേണ്ടി കൊടുക്കും അങ്ങനെയൊക്കെ കുളമ്പ് പനിയാണെങ്കിൽ പിന്നെ കുളമ്പ് പനിയൊക്കെ സാധാരണ വരുന്ന ഒരു രോഗമാണ് പശുക്കൾക്ക് മൃഗങ്ങൾക്ക് അവ വന്നാൽ നഖമൊക്കെ നല്ല പോലെ എപ്പോഴും വിരൽ അതിൻ്റെ കാലിൻ്റെ വിരലുകളൊക്കെ എപ്പോഴും നല്ല പോലെ വൃത്തിയാക്കണം ഉപ്പും വെള്ളവും കൂടെ തിളപ്പിച്ച് ആര്യവേപ്പിലയൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കും പിന്നെ ഇപ്പോൾ മൃഗാശുപത്രിയിൽ ചെന്നാൽ അതിനുള്ള മരുന്ന് കിട്ടും ഇഞ്ചക്ഷനൊക്കെയുണ്ടാകും പിന്നെ കറവയുള്ള പശുക്കൾക്കൊക്കെ ആണെങ്കിൽ ഇഞ്ചക്ഷനൊക്കെ എടുത്തുകഴിഞ്ഞാൽ പിന്നെ പാല് കുറയും അതിനെപ്പോഴും വളരെ കന്നുകാലികളെയൊക്കെ വളർത്തുമ്പോഴത്തേക്ക് കൂടൊക്കെ നല്ല നീറ്റായിരിക്കണം ഈച്ച ഈച്ചയൊന്നും വരാനുള്ള അവസരം ഒന്നും കൊടുക്കരുത് കൊടുക്കാതെ തന്നെ നമ്മളൊത്തിരി സൂക്ഷിക്കേണ്ടതാണ് അങ്ങനെയൊക്കെ സൂക്ഷിച്ചാൽ വലിയ രോഗങ്ങളൊന്നും ഇല്ലാതെ മൃഗങ്ങളയൊക്കെ വളർത്താനാകും ഇപ്പം പഷികളെയൊക്കെ കോഴിയും താറാവൊക്കെയാണെങ്കിൽ ഈ നാട്ടിലൊക്കെ വേറെ താറാവ് കൃഷിക്കാരൊക്കെയുള്ള കാരണം അവർ പല പല സ്ഥലങ്ങളിൽ കൊണ്ട് കൊണ്ട് തീറ്റിച്ചിട്ട് പിന്നെ നമ്മുടെ സ്ഥലത്തൊക്കെ വരുമ്പോഴത്തേയ്ക്കും താറാവിനൊക്കെ പനി വന്ന് പക്ഷി പനി വരുമ്പോഴത്തേക്ക് നമ്മൾ വീടുകളിൽ വളർത്തുന്ന അതിങ്ങൾക്കും ആ രോഗങ്ങളൊക്കെയുണ്ടാകും പിന്നെ എപ്പോഴും എന്താ താറാവും കോഴിയെയൊക്കെ വളർത്തുമ്പം ഈ പണ്ടൊക്ക ഉള്ള നാട്ടുമരുന്നായ മഞ്ഞളും കുരുമുളകും ഒക്കെയിട്ട് തിളപ്പിച്ച് വെള്ളമൊക്കെ മിക്കവാറും കുടിക്കാൻ കൊടുത്താൽ ഒരുമാതിരിപ്പെട്ട രോഗങ്ങളൊന്നും വരാതിരിക്കാൻ തുളസിയൊക്കെ ഇട്ട് തിളപ്പിച്ച് വെള്ളം കൊടുത്താൽ ഒരുമാതിരിപ്പെട്ട രോഗങ്ങളൊക്കെ വരാതെ സാധിക്കും